ഹലോ ഹലോ ഹലോ ആ കേള്ക്കാം അതെ ആ ആ എന്തൊക്കെയായിരുന്നു ഉദ്ദേശിച്ചത് ആണോ ആ ചായ എന്ത് എന്ത് കടുപ്പമുള്ളത് അതെങ്ങനെയാണ് എല്ലാം വിത്തൗട്ട് ആണോ ഉം ആയിട്ട് വേണ്ടെങ്കില് ചായ ആ ഇത് എപ്പോഴത്തേക്ക് അവിടെ എത്തിക്കണം ആ നാലരയല്ലേ നിങ്ങള് വണ്ടി വിടുമോ ആ ഉം കടി എന്തൊക്കെയാണ് വേണ്ടത് പരിപ്പ് വടയെക്കെയാണോ പരിപ്പ് കാണും ഉം ആ എല്ലാം കൂടെ കൂടി മതിയല്ലേ ആ ആ തരാമല്ലോ ആം ആ സമയം എപ്പോഴാണ് പറഞ്ഞത് ഏഴരയോ ഉം ആ ആ ഏഴേകാലോടുകൂടി കൂടി തന്നെ നോക്കാം ആ കിട്ടും ആ ആ പൈസ അപ്പം എങ്ങനെയാണ് ആയിരത്തി ഒരുന്നൂറ് ഉം ആ ആ ഗൂഗിള് പേ ചെയ്താല് മതിയായിരുന്നുവല്ലോ ഈ നമ്പരില് ചെയ്താല് മതി അത് തലേദിവസം ഒന്ന് പറയുകയാണെങ്കില് ചെയ്യാന് പറ്റും ആ അത് തലേദിവസം ഒന്ന് പറയുകയാണെങ്കില് എളുപ്പമായിരിക്കും ആണോ എണ്പത് പേര്ക്കാണോ ആ ആ എന്നാണ് അത് ഉം തരാമല്ലോ പ്ലാസ്റ്റിക് ഗ്ലാസ് കൊടുക്കുന്നതല്ല ആ പേപ്പര് ഗ്ലാസ് മാത്രമേ കൊടുക്കുകയുള്ളൂ ഒരു ഗ്ലാസ് കൊടുക്കുകയുള്ളൂ ആ കൊടുത്തുവിടാം ഉം ആ ആ നിങ്ങള് തലേദിവസം ഒന്ന് വിളിച്ച് ഓര്മ്മിപ്പിച്ചാല് മതി ആ ആ ആ തീരുമ്പോഴത്തേക്കും പോരെ ആ വിളിച്ചേക്കാം ആ ഇത്തിരി ഒരു കുറച്ച് തരാമോ ഇരുന്നൂറ് രൂപ ആ ആ ഇല്ല അല്ല ഇടയ്ക്കൊന്ന് വിളിച്ചാല് മതി ആ ആ എഴുതിവെച്ചിട്ടുണ്ട് ഉം ആ എഴുതിയിട്ടുണ്ട് എന്നാല് ശരിയെങ്കില്